ഞാനപ്പോള് ഒരു മാസം മുന്നേ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിയ സമയത്ത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അത് ഒരു മാസം ഉപയോഗിച്ചതിന്റെ റിവ്യു ആണ് ഞാനിവിടെ പങ്കിടാന് പോകുന്നെ അപ്പോള് വാങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് അതിന്റെ ഡിസൈനാണ് നല്ല കറുത്ത കളറും നല്ല ബട്ടൺസും എല്ലാം എല്ലാം തന്നെ നല്ല അടിപൊളിയായിരുന്നു അപ്പോള് പിന്നതിന്റെ ഒരു വേറൊരു സവിശേഷത എനിക്ക് പങ്കിടാനായിരിക്കുന്നത് അതിന്റെ കംഫര്ട്ടിനെ പറ്റിയാണ് ഇപ്പോള് നമ്മളത് ചെവിയില് വെച്ചാല് എത്രനേരം വെച്ചാലും നമുക്കറിയില്ല അത് ചെവിയിലുണ്ടെന്ന് അതൊരു നല്ലൊരു സുഖപ്രദമമായ ഒരു എക്സ്പീരിയന്സ്സായി എനിക്ക് തോന്നി ഞാൻ ഓടാൻ പോകുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും എല്ലാം അത് ധരിക്കാറുണ്ട് പക്ഷേ എനിക്കൊരു കുഴപ്പം തന്നെ ഉണ്ടായിരുന്നില്ല എന്റെ ചെവി എപ്പോഴും നല്ല സുഖപ്രദമായിത്തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിന് പിന്നെ പറയാണെങ്കിലതിന്റെ സൗണ്ട് ക്വാളിറ്റീനെ പറ്റിയിട്ടാണ് എത്ര നേരം പാട്ട് കേട്ടാലും നല്ല അടിപൊളിയായി തന്നെ ഫീല് ചെയ്യുമായിരുന്നു പാട്ടായാലും സിനിമയായാലും എന്ത് കേള്ക്കണമെങ്കില്ത്തന്നെ സൗണ്ടെല്ലാം തന്നെ നല്ല വ്യക്തമായിട്ടും ക്രിസ്പ്പായിട്ടും കേൾക്കാമായിരുന്നു പിന്നെ അതിന്റെയൊരു സവിശേഷതാന്ന് പറഞ്ഞാല് അതിന്റെ ബാറ്ററി ലൈഫായിരുന്നു മുപ്പത് മണിക്കൂറടുപ്പിച്ച് നമുക്ക് ബാറ്ററി ലഭിക്കുന്നുണ്ടാരുന്നു അപ്പോള് അതെനിക്ക് ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കൊക്കെ സുഖമായി അത് പോകുമായിരുന്നു ഒരു ചാർജിൽ തന്നെ എനിക്ക് ഒന്ന് രണ്ടാഴ്ച സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോള് അത് ഒരു എനിക്കൊരു കുഴപ്പമേ തന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിനെപ്പറ്റി പറയാണെങ്കിലതിന്റെ മൈക്കിനെ പറ്റിയായിരുന്നു ഞാൻ പുറത്ത് നല്ല ഒച്ചയും ബഹളവുമുള്ള ക്രൗഡിന്റെടെയിൽ നിന്നിട്ട് ഒരാളെ വിളിച്ചാലും അപ്പർത്താള്ക്ക് അടിപൊളിയായി കേള്ക്കാമായിരുന്നു ഞാനെന്ത് റെക്കോഡ് ചെയ്താലും നല്ല നല്ല സൗണ്ടോടെ അത് റെക്കോഡാകുമായിരുന്നു അപ്പോഴതിന്റെ മൈക്ക് എനിക്ക് നല്ല വ്യക്തമായിട്ടും അടിപൊളി ആയിട്ടും തോന്നി ഞാന് മാത്രമല്ല എന്റെ കോളിലപ്പറത്ത് നിന്ന ആൾക്കാർക്കും അത് നന്നായി കേൾക്കാമായിരുന്നു അപ്പോള് അത് എനിക്കൊരു നല്ലൊരു സവിശേഷതയായിട്ട് തോന്നി അപ്പോള് ഇത് ഞാൻ ആര്ക്ക് വേണമെങ്കിലും ഇത് റെക്കമെൻറ്റ് ചെയ്യും ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്റെ എല്ലാ എക്സ്പെക്റ്റേഷൻസിനേയും അതിര് കടന്നു എന്നു തന്നെ പറയാം ആര്ക്ക് വേണേലും ഞാനിത് റെക്കമെൻറ്റും ചെയ്യാം വേണമെങ്കില് ഇതേ ബ്രാൻറ്റിന്റെ തന്നെ വേറെ ഹെഡ്ഫോൺസെനിക്ക് നോക്കുകയും ചെയ്യാം